ഹലോ ഹലോ ആ ബാങ്കിൽ അല്ലേ അപ്പം ഞാൻ എന്താ പി എഫി ൻ്റെ എൻ്റെ ലോൺ വായ്പക്ക് വേണ്ടീട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത്തെങ്ങനെ ചെയ്യണ്ടേന്നും അതിൻ്റെ എൻ്റെ പി എഫിൽ നിന്നുള്ള ഒരു ലോണിൻ്റെ കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജറെങ്ങനെയാണ് എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് വിളിക്കുന്നത് ആണ് അല്ലാതെ ഇപ്പം ബാങ്കിൽ വന്നിട്ടാണോ അതോ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ ഓ ഓ ഓൺലൈനായിട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ ആ അപ്പം നമ്മൾ ഈ പോർട്ടൽല് ആ ഇതിൻ്റെ ഈ പോർട്ടൽല് കയറുവാണ് ചെയ്യേണ്ടത് ഓക്കെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഓക്കെ ഓക്കെ വായ്പാ വിഭാഗം അല്ലേ അപ്പം നമ്മുടെ യു എ എൻ നമ്പറും പാസ്വേഡും ആ അത് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അപ്പം അത് വെച്ചിട്ട് കയറിയിട്ട് അപ്ലൈ ചെയ്യണമല്ലേ ഓക്കെ അത് ഓക്കെ ഓക്കെ അപ്പം ഇതിന് ഏകദേശം എത്ര സമയം പിടിക്കും ഈ ആപ്ലിക്കേഷനൊക്കെ കിട്ടുന്നത് വേണ്ടീട്ട്